ആ ഹലോ ആ എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു അതായത് നാളെ എനിക്ക് അരിസ്റ്റോ ജംഗ്ഷൻ വരെ പോകണമായിരുന്നു വൈകുന്നേരം ഒരു ഏഴര ഏഴരയ്ക്കാണ് എനിക്ക് അവിടെ നിന്ന് ബസ് ഞാൻ അവിടെ നിന്ന് കോഴിക്കോടേയ്ക്ക് പോവാണ് അപ്പോൾ എനിക്കൊരു ഏഴേകാല് ഒക്കെ ആകുമ്പോഴേക്കും അരിസ്റ്റോ ജംഗ്ഷനിലേക്ക് എത്തണം അപ്പം എന്നെ ഇവിടെ നിന്ന് കൊണ്ടാക്കാനായിട്ടൊന്നും ആരുമില്ല നീ എനിക്കൊരു ഓട്ടോ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ അതായത് നിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ഓട്ടോ ഡ്രൈവറോ അങ്ങനെ ആരെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടോ പരിചയമുണ്ടെങ്കിൽ ആ കോൺടാക്ട് ഒന്ന് തരുമോ അല്ലെങ്കിൽ നീ ഒന്ന് വിളിച്ചിട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഒന്നു നാള ഒരു ഒരു ആറര ഒക്കെ ആവുമ്പോഴേക്കും ഫ്രീയാണോ ഓട്ടം പോവാൻ റെഡിയാണോ എന്നൊന്നൊക്കെ അന്വേഷിച്ചിട്ട് എന്നോടൊന്നു പറയാമോ അതെ ആ എനിക്ക് നാളെ ഏഴേകാലിന് അരിസ്റ്റോ ജംഗ്ഷനിലെത്തണം അതെ ഇവിടെ നിന്ന് വറ്റിയൂർക്കാവിൽ നിന്ന് അരിസ്റ്റോ ജംഗ്ഷൻ വരെ നീ അപ്പോൾ എത്ര രൂപയാകുമെന്നും എത്ര മണിക്ക് വരുമെന്നും ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാമോ ഓക്കേ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി ആ ആ ചേട്ടനോട് എൻ്റെ നമ്പറ് ഫോൺ നമ്പറ് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ ചേട്ടൻ എന്നെ ഡയറക്റ്റാ വിളിക്കട്ടെ ഓക്കേ ഓക്കേ നിനക്ക് പരിചയുള്ള ആൾ ആ പറഞ്ഞാൽ മതി ഓക്കേ നീ അങ്ങനെ പറഞ്ഞിട്ട് അരിസ്റ്റോ ജംഗ്ഷനിലേക്ക് ഏഴേകാലിന് എത്തണം വൈകുന്നേരം ഏഴേകാലിന് അരിസ്റ്റോ ജംഗ്ഷനിൽ എത്തണം ഞാനൊരു ആറരയാകുമ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അവിടെ റെഡിയായി നിൽക്കും ഓക്കേ നീക്ക് പറഞ്ഞാൽ മതി കരിമങ്കുളം ക്ഷേത്രത്തിൻ്റെ അവിടെ പറഞ്ഞാൽ മതി ആ ഓക്കേ ആ നീ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്താൽ മതി ചേട്ടൻ കോൺടാക്റ്റ് ചെയ്യും ഓക്കേ ആ നീ വിളിച്ചു ചോദിച്ചിട്ട് ഓക്കേ എന്നെ വിളിക്കൂ ഓക്കേ ഓക്കേ